ഞാൻ ഉപയോഗിക്കുന്നത് ഐഫോണാണ് അപ്പോൾ ഐഫോണിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതിൻ്റെ സെക്യൂരിറ്റി തന്നെ ആണ് നമുക്ക് വേറെ ഏത് ബ്രാൻഡഡ് ഫോൺ നല്കുന്നതിനേക്കാളും എത്ര വലിയ രീതിയിൽ സെക്യൂരിറ്റി നമുക്ക് ഐ ഫോൺ നൽകുന്നുണ്ട് നമ്മുടെ എന്ത് പേർസണൽ കാര്യങ്ങളും ഐഫോണിൽ സൂക്ഷിക്കാൻ കഴിയും അത് ഒരിക്കലും പുറംലോകം അറിയില്ല അതാണ് ഐഫോണിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് പിന്നെ എന്താണെന്നുവെച്ചാൽ അതിൻ്റെ ക്യാമറ ക്യാമറ നമുക്ക് ഒരു എസ് എൽ ആർ ക്യാമറയുടെ ഒരു എച്ച് ഡി ക്വാളിറ്റി ഉള്ള വിഡിയോയും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ കഴിയും അതേപോലെ അതേമാതിരിത്തന്നെ നമുക്ക് നമ്മുടെ ഐഫോണിൽ എടുക്കാൻ കഴിയും അതൊക്കെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഐഫോണിന് പിന്നെ അതിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ് പ്രോസസ്സിംഗ് സ്പീഡ് എന്ന് വെച്ചാൽ ഏതൊരു ആൻഡ്രോയിഡ് ഫോണിനേക്കാളും എത്രയോ മികവുറ്റതാണ് എന്നുവെച്ചാൽ ഒരു ലാഗോ അല്ലെങ്കിൽ ഹാങ്ങോ ഒന്നുമില്ല നമുക്ക് നല്ല സ്പീഡിലും നമുക്ക് നമുക്ക് എന്ത് വർക്ക് വേണേലും ചെയ്യാം അതിൽ നമുക്ക് എന്തും വിശ്വസിച്ച് ചെയ്ത് തീർക്കാം നമ്മളെ പാതിവഴിലിട്ട് പോകില്ല ഇതൊക്കെത്തന്നെയാണ് ഇതിൻ്റെ വലിയ ഒരു അഡ്വാൻറ്റേജ് പിന്നെ ഇതിനൊരു ഫിക്സിഡ് പ്രൈസ് ഉണ്ട് ഒരു ലക്ഷ്വറി ഫോണായിരിക്കും ഒരു ലക്ഷ്വറി ഫീൽ ചെയ്യും നമുക്ക് ഐ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യമുള്ള ആഹ് അത്യാവശ്യമുള്ള ഫ്രണ്ട്ലിയാണ് അത്യാവശ്യം നമ്മുടെ ഹാൻഡിൽ നമ്മുടെ കൈയിൽ നമുക്ക് ഒതുങ്ങും നമുക്ക് കോൾ ചെയ്യാനും ഒരു കംഫോർട്ട് ഉണ്ടാവും നമുക്ക് കംഫോർട്ട് ഫീൽ തരുന്നൊരു ഫോണാണ് ഐ ഫോൺ ഇതൊക്കെ ആണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്